നമ്മുടെ പ്രാദേശിക ഉത്സവം നമ്മൾ നോക്കുകയാണ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ജില്ലയിൽ ആഘോഷിക്കുന്ന ഉത്സവം പല ഉത്സവങ്ങളും ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ആഘോഷിക്കുന്നുണ്ട് മിക്കവാറും മതം ഓരോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഓണം വിഷു അങ്ങനെ പിന്നെ ക്രിസ്മസുണ്ട് മുഹറം ഉണ്ട് പിന്നെ നബി ദിനം വരുന്നുണ്ട് പിന്നെ പെരുന്നാള് വലിയ പെരു ഒരു ചെറു പെരുന്നാൾ അങ്ങനെ അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ രഥോത്സവം കൽപ്പാത്തി രഥോത്സവം അതിനെ കുറിച്ച് ഇങ്ങനെ പല പല ഉത്സവങ്ങളൊക്കെയാണ് നമ്മള് പാലക്കാട് ജില്ലയിൽ ആഘോഷിക്കുന്നത് അതിനെക്കുറിച്ച് പറയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണത്തിനെക്കുറിച്ച് പറയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓണസദ്യ പൂക്കളം പിന്നെ ഓണക്കോടി അതിൻ്റെ ഓണക്കളികള് മിക്ക ക്ലബുകളിലും ഓണപരിപാടി ഉണ്ടാകും അപ്പോൾ അവരുടെ ഓണക്കളിയും കാര്യങ്ങളും അങ്ങനെ ഓണം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേയുണ്ട് ഓണത്തിനെക്കുറിച്ച് ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ രഥോത്സവം നോക്കാണെന്ന് പറയുമ്പോൾ നാലഞ്ചു ദിവസത്തെ പരിപാടിയാണ് വലിയ ഗംഭീര പരിപാടിയാണ് രഥോത്സവം അവിടെ രഥം നമ്മള് കയറില് കെട്ടി വടം കെട്ടി വലിച്ച് മൂന്ന് രഥവും സംഗമം അവിടെ അവിടെ ആ ജനത്തിരക്കും അവിടെ കുറേ ആഘോഷങ്ങളും പരിപാടികളും അവിടെ കച്ചവടക്കാരും അങ്ങനെ രഥോത്സവം നോക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ക്രിസ്മസ് ആവുമ്പോൾ ലൈറ്റിങ് മറ്റേ നമ്മുടെ സ്റ്റാർ കെട്ടി മറ്റേ വീട്ടിൽ സ്റ്റാർ ഇടലും കേക്ക് കട്ട് ചെയ്യലും പിന്നെ എന്താണ് അവര് പള്ളിയിൽ പോകുക പിന്നെ അവരുടെ ഒപ്പം ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികള് കൂട്ടുകാർ ഉണ്ടാകും ആ സമയത്തൊക്കെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും അങ്ങനെ ഓരോ പരിപാടിയും പിന്നെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ദീപാവലി ഉണ്ട് ദീപാവലിക്ക് ചില ആൾക്കാർ പടക്കം പൊട്ടിക്കും ചില ആൾക്കാർ വിളക്ക് അല്ലേൽ നമ്മുടെ ദീപങ്ങൾ മാത്രം തെളിയിക്കും അങ്ങനെ ഓരോരുത്തര് അതൊക്കെ ഓരോരുത്തരുടെ രീതി പോലെ അങ്ങനെ പല ഉത്സവങ്ങളാണ് നമ്മുടെ പാലക്കാട് ജില്ലയില് മിക്കവാറും എല്ലാ ഉത്സവങ്ങളും എല്ലാ അതായത് എല്ലാ രീതിയിലുള്ള ആൾക്കാരുമുള്ളതുകൊണ്ട് എല്ലാ ഉത്സവങ്ങളും നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏകദേശം ആഘോഷിക്കുന്നുണ്ട്